കാ തയ് പത്തു വെച്ചാൽ കാ പത്തു തിന്നാം മിന്നുന്നതെല്ലാം പൊന്നല്ല കണ്ടറിയാത്തവൻ കൊണ്ടറിയും പൊന്മുട്ടയിടുന്ന താറാവ് ചൊല്ലിക്കൊട് തല്ലിക്കൊട് തല്ലിക്കളാ പിന്നെന്താണ് കാള കിടക്കും കയറോടും വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിൽ ചവിട്ടാൻ പറ്റുമോ പിന്നെന്താ അതുപോലെ തന്നെ കാണുന്നതൊന്നും പൊന്നല്ല മിന്നുന്നതൊന്നും പൊന്നല്ല ചൊല്ലിക്കൊട് തല്ലിക്കൊട് തല്ലിക്കളാ കണ്ടറിയാത്തവൻ കൊണ്ടറിയും അറിയാത്ത പിള്ള ചൊറിയുമ്പറിയും കാ കാ കാ ക് എന്താണ് സ്വന്തം സ്വന്തം കാഴ്ച്ചയിൽ തെളിഞ്ഞാൽ അന്യൻ്റെ കാഴ്ച്ചയിൽ മുങ്ങാം ഇരുട്ടത്ത് ഫുഡ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്താണ് ഇരുട്ട് ഇരുട്ട് ഇരുട്ടിൽ തപ്പിയാൽ വെളിച്ചത്തു കോരാം മഞ്ഞി മഞ്ഞിൽ കുളിച്ചാൽ വെള്ളത്തിൽ നീന്താൻ പറ്റുമോ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ കാ കാക്ക പൊന്ന് തൻ തൻ കു തൻ കുഞ്ഞ് കാക്ക കുഞ്ഞ് തൻ കുഞ്ഞ്